എനിക്കിപ്പം അത്യാവശ്യമായിട്ട് ഒര് ക്യാബ് ബുക്ക് ചെയ്യണമായിരുന്നു ഒന്ന് നിങ്ങള് എത്ര സമയത്തിനുള്ളില് എൻ്റെ വീട്ടിലെത്തും പിന്നെ കറക്റ്റ് എനിക്ക് ലൊക്കേഷനിൽ എത്തുകയും വേണം അതിനുള്ള നിങ്ങൾ എത്ര സമയം എത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴത്തേനും വരാമായിരുന്നു എവിടെയാണ് എത്തേണ്ടത് പറഞ്ഞാൽ വീട്ടിലോട്ട് വരുമോ പിന്നെ പോകുന്ന വഴിക്ക് ട്രാഫിക്ക് അങ്ങനത്തെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ വേറെ ട്രാഫിക്കിലൊക്കെ കുടുങ്ങിയാൾ എൻ്റെ സമയം പോകും അതിനൊന്നും എനിക്ക് പറ്റില്ല അപ്പം വേറെ എന്തെങ്കിലും വഴി നിങ്ങൾക്കറിയുമോ പോകുന്ന റൂട്ടില് നല്ല ട്രാഫിക്കുള്ള റൂട്ടാണെന്ന് പറഞ്ഞു അപ്പം നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയുമോ എത്ര സമയത്തിനുള്ളിൽ എന്നെ ലൊക്കേഷനിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എത്തേണ്ട സ്ഥലമായിരുന്നു നിങ്ങൾക്ക് വേറെ റൂട്ടൊക്കെ അറിയാവോ അവിടെ എത്തേണ്ടത് അങ്ങനാണെങ്കില് നിങ്ങളൊന്ന് പെട്ടെന്ന് പറയുകയാണെങ്കില് എനിക്ക് പോകാമായിരുന്നു എന്നാൽ വേഗം ഒന്ന് നോക്കിയിട്ട് പറയാൻ ഉള്ള ഇത് നോക്കാൻ